സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനത്തിനും വളർച്ചക്കും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് തൊഴിൽ കയറ്റുമതി ടൂറിസം വിൽപ്പന മ്യൂസിയങ്ങൾ പ്രദർശനങ്ങൾ ടൂറിസം മേഖലകളിലാണേൽ തന്നെ ഒരുപാട് സംരംഭങ്ങൾക്കും കാര്യങ്ങൾക്കും വഴി തെളിക്കുന്ന ഒന്നാണ് കാഴ്ചകളെ വിസ്മയം ആക്കാനുള്ളൊരോപ്ഷൻ കൂടിയാണ് ടൂറിസം മേഖലകൾ എന്ന് പറയുന്നത് ഇതേപോലെ വിൽപ്പന എന്ന് പറയുന്നത് ഉത്സവങ്ങളിലും പെരുന്നാൾ പറമ്പുകളിലും ആണെങ്കിലും വിൽപ്പനകളിലൂടെ ഒരുപാട് വളർച്ചയിലേക്കെത്താൻ വേണ്ടി കഴിയുന്നു തൊഴിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് തൊഴിൽ നമുക്ക് മുമ്പിൽ തന്നെ വഴിവെട്ടിത്തടിച്ച് കിടപ്പുണ്ട് അതിലൂടെ ഒരുപാട് വരുമാന മാർഗ്ഗങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ജനതക്ക് സാധിക്കാൻ കഴിയുന്നുണ്ട് മ്യൂസിയങ്ങളിലൂടെ ഒരുപാട് പേർക്ക് ഒരുപാട് പഴയ വസ്തുക്കൾ സന്ദർശിക്കാനും മറ്റുമായിട്ടുള്ള ഒരുപാട് പ്രദർശനങ്ങളിലൂടെ മ്യൂസിയങ്ങൾ വളരെ അധികം മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് കരകൗശല മേഖലകൾക്കെ ആണെങ്കിൽ പോലും കരകൗശല മേഖല ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് തൊഴിൽ കയറ്റുമതി ടൂറിസം വിൽപ്പന മ്യൂസിയങ്ങൾ പ്രദർശനങ്ങൾ എന്നിവയിലൂടെയാണ് കരകൗശല മേഖല മുൻപന്തിയിൽ നിൽക്കുന്നത്